നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര സവിഷേതകൾ നിറഞ്ഞ പല സംസ്കാരങ്ങൾ നിറഞ്ഞ പല ഭാഷകളുള്ള ഇവിടെ ഒത്തിരി ഭാഷകളുണ്ട് ഇരുപത്തൊൻപത് പിന്നെ ദിസ് അതായത് സ്റ്റേറ്റാണ് ഏ ആ ഇരുപത്തൊൻപത് സ്റ്റേറ്റിലും ഇരുപത്തൊൻപത് ഭാഷകളാണ് വളരെ നല്ലതും എന്താ പറയുക ഭയങ്കര ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ് വിനോദ സഞ്ചാരകേന്ദ്രമാണ് പല സ്ഥലങ്ങളും ഒന്നിനൊന്നു മെച്ചം വളരെ പ്രശസ്തമായ ടെമ്പിളുകള് എല്ലാം നിറഞ്ഞുനിന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് ഇന്ത്യ അതില് ഫസ്റ് എന്ന് പറയുമ്പം അതില് നമുക്ക് ഇമ്പോർട്ടന്റായിട്ട് നമ്മള് ഫസ്ററ് ലാൻഡ്മാർക്ക് എന്ന് പറയുമ്പം നമ്മളുടെ മനസ്സിലാദ്യം ഓർമ്മവരുന്നത് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂ ഡൽഹിയില് ഏഹ് ഡൽഹിൻ്റെ അടുത്തുള്ള താജ്മഹലാണ് അതായത് താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു അതൊരു പൈതൃകമാണ് എന്നും സൂക്ഷിക്കുന്ന അതി മനോഹരമായ ഒന്ന് വെള്ളക്കൊട്ടാരം എന്നൊക്കെ പറയുന്ന ഷാജഹാൻ തൻ്റെ ഭാര്യയ്ക്കായി ഭാര്യയുടെ സ്മൃതി ആള് മരിച്ചപ്പം ആൾക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് താജ്മഹാൽ അതി മനോഹരമായ രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരമാണെന്നാണ് പറയുന്നത് കുറെ ആൾക്കാരൊത്തിരി നാളുകൾ കൂടിയുണ്ടാക്കിയത് പിന്നെ വിക്ടോറിയ മെമ്മോറിയൽ എന്നു പറഞ്ഞ ഒരു സംഭവമുണ്ട് അതേപോലെ ഹവ മെഹൽ വളരെ നല്ല ഒരു ഒരു കൊട്ടാരമാണ് ഹവ മെഹൽ റെഡ് ഫോർട്ട് പിന്നെ ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ കണ്ടിട്ടുണ്ടോ അതിമനോഹരമായ ഒന്ന് രാത്രിയിൽ കാണണം രാത്രി ആ ലൈറ്റൊക്കെയിട്ട് നമ്മള് ഗോൾഡൻ ടെമ്പിളിൽ പോകുമ്പോൾ അതിന്റെ ഭംഗി ഉഫ് അത് ഭയങ്കര ഇതാണ് കെട്ടോ ഈ ഗോൾഡൻ ടെമ്പിൾ എല്ലാ വിനോദ സഞ്ചാരകേന്ദ്രങ്ങളിലും അതായത് വിനോദസഞ്ചാരികളെ അതായതു പുറത്തുനിന്നുള്ളവരെ കൂടുതൽ ആകർഷിക്കുന്നതില് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് ഹവമെഹൽ അതേപോലെതന്നെ ഗോൾഡൻ ടെമ്പിൾ താജ്മഹാൽ സിറ്റി പാലസ് ഇൻ ജയ്പൂർ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ആ അതൊരു കൊട്ടാരമാണ് ജയ്പ്പൂരിൽ സ്ഥിതി ചെയ്യുന്നൊരു കൊട്ടാരം അതിമനോഹരമായ കൊട്ടാരം അതേപോലെ ഗേറ്റ് വേ ഓഫ് ഇൻഡ്യ ഇൻഡ്യയുടെ ഗേറ്റ് ഏഹ് അത് അതെന്താണ് പറയുക നമ്മുടെ ഗേറ്റ് ഇൻഡ്യയുടെ ഗേറ്റ് ഗേറ്റ് വേ ഓഫ് ഇൻഡ്യ ഭയങ്കര സൂപ്പർ ആണ് അങ്ങനെ ഒത്തിരിയൊത്തിരി സ്ഥലങ്ങളുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതൊക്കെത്തന്നെയേയുള്ളു ഇതുകൂടാതെ ഇമ്പോർട്ടന്റായിട്ടും ഒത്തിരി ഒത്തിരി കാണാൻ കൊള്ളാവുന്ന ഒത്തിരിയൊത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്